എന്റെ ഈ പ്രദേശത്ത് തന്നെ ഒരുപാട് ഹെല്ത്ത് സെന്ററുകളും ആരോഗ്യ കേന്ദ്രങ്ങളുമുണ്ട് നിലവിൽ എല്ലാവര്ക്കും എത്തിപ്പെടാന് പറ്റുന്ന രീതിയിൽ അടുത്തടുത്തായിട്ട് തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളാണെങ്കിൽ തന്നെ ഒരു ഒരു പത്ത് കിലോ മീറ്റര് ചുറ്റളവിൽ തന്നെ ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ട് പിന്നെ അതുപോലത്തെ ഹെല്ത്ത് സെന്ററുണ്ട് ഹെല്ത്ത് സെന്റര് ആണെങ്കിൽ തന്നെ ഇവിടെ എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഒന്നുണ്ട് പിന്നെ ഒരു ആറു കിലോ മീറ്റര് അപ്പുറം വേറൊന്നുണ്ട് പിന്നെ അതിന്റെ അപ്പുറത്തുമുണ്ട് ഇവിടെ ഒരുപാടുണ്ട് ഞാന് നോക്കുമ്പം അപ്പം ഹെല്ത്ത് സെന്ററും ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ ഒരുപാടുണ്ട് പിന്നെ ആശുപത്രി ആണെങ്കിൽ തന്നെ ജില്ലാശുപത്രി ഒന്നുണ്ട് മെഡിക്കൽ കോളേജുണ്ട് എന്നാലും ഈ ആ ആരോഗ്യ കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് വരുമ്പോൾ ആശുപത്രികൾ കുറവാണെന്നാണ് എനിക്കൊരു ഇത് ആരോഗ്യ കേന്ദ്രങ്ങൾ ഒരുപാടുണ്ട് ഹെല്ത്ത് സെന്ററുണ്ട് പക്ഷെ കൊ ആശുപത്രികൾ ജില്ലാശുപത്രി ആണെങ്കിലും താലൂക്കാശുപത്രികളാണെങ്കിലും അങ്ങനത്തെ നിലവാരത്തിലുള്ള ആശുപത്രികൾ കുറച്ചും കൂടി കൂടുതൽ വന്ന് കഴിഞ്ഞാൽ നല്ലതാണെന്ന് എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്